നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മൊബൈലുപയോഗിക്കുന്നത് കൊണ്ട് കുറേ ദോഷങ്ങളും കുറേ ഗുണങ്ങളും ഒക്കെയുണ്ട് ഇപ്പോൾ നമ്മളുടെ നാട്ടിലുള്ള ആളെ തന്നെ ആൾ വേറെ നാട്ടിലുള്ള അവരുടെ ബന്ധുക്കളെ വിളിക്കാനും ഈ കൊച്ചു മൊബൈൽ കൊണ്ട് നമുക്ക് സാധിക്കും വീഡിയോ കോൾ ഒക്കെ കണ്ടാണ് സംസാ സംസാരിക്കാൻ നമുക്ക് ആപ്പുകൾ ഉണ്ട് കുറേ വാർത്തകളറിയാൻ പറ്റും ഇപ്പോൾ നടക്കണ പലസ്തീൻ ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധം അറിയാൻ പറ്റും ഇതൊക്കെയാണിതിൻ്റെ നല്ല വശങ്ങൾ പക്ഷേ ഈ മൊബൈലിനു തന്നെ കുറച്ച് സന്തോഷമില്ലാത്ത വശങ്ങളും ഒക്കെയുണ്ട് എന്തക്കെയെന്നു വെച്ചാൽ ഈ മൊബൈലിലൂടെ സംസാരിച്ച് പരിചയപ്പെട്ട് തട്ടി കൊണ്ട് പോകുകയും സംസാരിച്ച് പരിചയപ്പെട്ട് കടത്തി കൊണ്ട് പോകുകയും ഒക്കെ ഈ മൊബൈലിലൂടെ തന്നെയാണ് ഈ മൊബൈലിലൂടെ വീണ്ടും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട് അവരുടെ വാക്കുകൾക്ക് അടിയിൽ നിന്നു കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന മാനസികമായി ബുദ്ധിമുട്ടുന്ന കുറച്ച് കുട്ടികളും നമ്മുടെ ഈ കാലഘട്ടത്തിലുണ്ട് പക്ഷേ ഞമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലും ഇതിനെക്കാളും ദോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ മൊബൈൽ കൊണ്ട് നടക്കുന്നത് ഈ മൊബൈൽ കിട്ടാത്തതു കൊണ്ട് ചെറിയ കുട്ടികൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല ഉറങ്ങുന്നില്ല ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ ചെയ്യുന്നത്